ഞാൻ എൻ്റെ സംഗീതം അല്ലെങ്കിൽ ഞാൻ പാടാ ൻ പടിച്ചത് ഇത് എൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് എൻ്റെമ്മയൊരു ഡാൻസ് ടീച്ചറാണ് കൂടാതെ കഥാ കവിതാ പാരായണം സംഘഗാനം തിരുവാതിരപ്പാട്ട് നാടോടിപ്പാട്ട് അങ്ങനെ ഒരുപാട് മാപ്പിളപ്പാട്ട് നാടൻ പാട്ടുകൾ അങ്ങനൊരുപാട് പാട്ടുകളിൽ പാടുകയും അതെഴുതി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വ്യക്തിയായതു കൊണ്ട് എൻ്റമ്മയുടെ അടുത്തു നിന്നാണ് എല്ലാവിധ പാട്ടുകളും ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഗുരു എന്നു പറയുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെമ്മ നല്ല വളരേയധികം അതായതൊരു മോൾ ഒരു മകളെ മകളേ പഠിപ്പിക്കുന്ന ശിക്ഷണത്തിലല്ല എല്ലാ പിള്ളേരേ പഠിപ്പിക്കുന്നതു പോലെ തന്നെയാണ് അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തിത്തരികയും അതിൽ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളതേക്ക് ക്ലിയർ ചെയ്യുകയും അങ്ങനെ എനിക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരേ വളരെ ഒരു ഗുരുവെന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമാക്കിത്തരികയും എൻ്റെ ഞാനെൻ്റെ പഠന കാലത്ത് കവിതാ പാരായണത്തിനൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെനിക്ക് വരുന്ന പോരായ്മകളൊക്കെ എൻ്റമ്മ തന്നെയാണെനിക്ക് ക്ലിയർ ചെയ്തു തരുന്നതും ഇനി പാടുമ്പം ഇങ്ങനെ പാടണം അല്ലെങ്കിൽ ഇന്നത് പാ വരി ക്ലിയറായില്ലെങ്കിൽ അങ്ങനേ അതു വ്യക്തമായിട്ടു പറഞ്ഞ് അക്ഷര സ്ഫുടതയോടു കൂടി പാടണം അല്ലേ അതിൻ്റെ താളത്തിൽപ്പാടണം ഈണത്തിൽപ്പാടണം അങ്ങനെയുള്ള ഒരുപാടൊരുപാട് നല്ല കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞു തരുന്നത് പിന്നെ നമുക്ക് തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ അതും ഒരു ഒരൂ പഠിക്കുന്നൊരു വ്യക്തിയെന്ന നിലയിൽ എനിക്ക് ചെയ്ത് ചെയ്ത് തരികയും ഞാനത് ഞാനത് അതു പോലെ തന്നെ അനുസരിച്ച് അതനുസരിച്ചു തന്നെ മുന്നോട്ടു പോകുകയും ചെയ്യാറുണ്ട് എനിക്ക് കൂടുതലുമുണ്ടായിരിക്കുന്ന അനുഭവങ്ങളെന്നു പറഞ്ഞാനായിട്ട് നല്ല അനുഭവങ്ങൾ തന്നെയാണ് കാരണം ഞാനെൻ്റെ എൻ്റെ അമ്മയുടെ അടുത്തു നിന്നായതു കൊണ്ട് ഒരു ഡാൻസ് ടീച്ചർ ഒക്കെ ആയതു കൊണ്ടും എനിക്കെൻ്റമ്മയുടെ ടാലൻറ്റ്സ് വളരെ നന്നായിട്ടറിയാവുന്നത് കൊണ്ടും എനിക്കത് പെട്ടെന്ന് അതങ്ങനെ തന്നെ ക്യാച്ച് ചെയ്യാൻ വളരേ എളുപ്പമായിരുന്നു എനിക്കതിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാനത് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ശ്രദ്ധിച്ച് എൻ്റെ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ മനസ്സിലാക്കി ഞാനതെല്ലാം മെച്ചപ്പെടുത്തിത്തന്നെ മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നു എനിക്കതിൽ വേറേ വ്യത്യാസ അങ്ങനൊരു മോശ അനുഭവങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റമ്മ തന്നെ ആയതു കൊണ്ടു തന്നെയായിരിക്കാം എനിക്കങ്ങനത്തൊരുപാട് കുഴപ്പങ്ങൾ സാധാരണ ഗതിയിൽ വരുന്ന വ്യത്യാസങ്ങളൊന്നുമല്ലായിരുന്നു എനിക്കെല്ലാം പെട്ടെന്നു തന്നെ മനസ്സിലാക്കാനുള്ള ഒരിതുണ്ട് ചെറിയൊരു സംഗതി പാടാ ൻ പറഞ്ഞാലും ഞാൻ വളരെ പെട്ടെന്ന് പാടുകയും അതിനേക്കുറിച്ച് വളരെ ബോതേഡായിട്ട് തന്നെ മുന്നോട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എത്തിക്കുകയും ചെയ്യുക ചെയ്യുന്നതു കൊണ്ട് എനിക്കതിനീ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഓരോ പാട്ടുകളും ഓരോ കവിതയാണെങ്കിൽ അങ്ങനെ സംഘഗാനത്തിനുള്ളതാണെങ്കി ലും അങ്ങനെ ഞാനെൻ്റെ രീതിയിൽത്തന്നെയെല്ലാം എൻ്റെ കൂടെ എൻ്റൊപ്പം നിൽക്കുന്നവരെയും അത് മെച്ചപ്പെടുത്തി മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എൻ്റെ എൻ്റെ കൂട്ടത്തിലുള്ള പാട്ട് പാടിക്കൊണ്ടിരുന്ന കുട്ടികളുടെ കൂടെയൊക്കെ നമ്മൾ അത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് ഞാനൊരുപാട് ശ്രമിച്ചിട്ടുമുണ്ട് ശ്രമം വിജയകരമായിട്ട് നമ്മുടെ ആ സമ്മാനങ്ങൾ പ്രൈസ് വാങ്ങിക്കുകയും തിരുവാതിര പാട്ടുകൾക്ക് സമ്മാനം മേടിക്കും അങ്ങനോരോ ആനുവൽ ഡേ വരുമ്പോഴായിരിക്കും കൂടുതൽ നമ്മളങ്ങനെ മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കുന്നത് എൻ്റെ ഗുരു എൻ്റെ അമ്മയായതു കൊണ്ട് ഞാനത് വളരേ വളരേ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്തതു കൊണ്ട് ഞാൻ നൽ എനിക്ക് എവിടെയെല്ലാം മത്സരത്തിനു പോയോ അവിടെയെല്ലാം എനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്കതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല പറഞ്ഞു തരുന്ന തെറ്റുകളെ അതിനേ അവഗണിക്കാതെ അതെല്ലാം ഉൾക്കൊണ്ടു തന്നെയാണ് മുന്നോട്ടു പോയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും അങ്ങനെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ മാരീഡാണ് എന്നാൽ എനിക്ക് എൻ്റെ മോളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കെന്തെങ്കിലും പാട്ടിനേക്കുറിച്ചെന്തെങ്കിലുമിതൊക്കെ വരുമ്പോൾ ഞാനതിനേക്കുറിച്ചും എൻ്റമ്മയോടു തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്തു പോകാറുണ്ട് ഞാൻ വളരെ മാന്യമായിത്തന്നെ അതിനേ കൈകാര്യം ചെയ്ത് ക്ലിയർ ചെയ്തു മുന്നോട്ടു പോകാറുണ്ട്